ഇപ്പം വയനാട് ജില്ലയിലുള്ളവർ പ്രധാനമായിട്ടും നേരിടുന്ന വെല്ലുവിളികളും കാര്യങ്ങളും എന്തോക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വയനാട് ജില്ലയിലിപ്പോൾ റയിൽവേ സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഉയർന്ന പ്രദേശം ആയതുകൊണ്ട് ട്രെയിനോ കാര്യങ്ങളോ ഇല്ലാത്തോണ്ട് എന്താ പറയാ ആൾക്കാർക്ക് കോഴിക്കോട് പോലുള്ള ഒരു അ സംസ്ഥാനത്ത് അടുത്തുള്ള സംസ്ഥാനത്തെ ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട് കാരണം അവർക്ക് യാത്രാസൗകര്യങ്ങളൊന്നും അങ്ങനെ ഇതിന് ഇവിടെ ലഭിക്കുന്നില്ല കൂടുതലും ബസ്സിലൊക്കെയാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് ബസ്സിൽ യാത്ര ചെയ്ത് കോഴിക്കോട് കണ്ണൂർ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വേണം അവർക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ ട്രെയിനും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ ട്രെയിനോ എയർപോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിതുവരെ എത്തിയിട്ടില്ല അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാലാവസ്ഥവ്യതിയാനങ്ങളെന്നക്കെ പറയുമ്പം കാലാവസ്ഥയിൽ തന്നെ വയനാട്ടിലെക്കെ നല്ല വ്യത്യാസമുണ്ട് കാരണം മറ്റു താഴെക്കൊക്കെ നല്ല ചൂടും കാര്യങ്ങളുമാണ് വയനാട്ടിൽ ഇപ്പോൾ എന്താ പറയാ നല്ല തണുപ്പാണ് അപ്പോൾ വയനാട്ടിൽ പ്രത്യേകിച്ച് എന്താ പറയാ ചില എന്താ പറയാ വിളകൾ എന്താ പറയാ കൃഷി ചെയ്യാനൊക്കെ ചില വിത്തുകൾ മാത്രമേ പറ്റുള്ളൂ എല്ലാം ഒന്നും വയനാട്ടിൽ അങ്ങനെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല അതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്